ഹലോ ആരാണ് സംസാരിക്കുന്നത് ഹലോ ആ ആരാണ് സംസാരിക്കുന്നത്

നിങ്ങൾക്ക് കേൾക്കാമോ പറഞ്ഞോ പറഞ്ഞോളൂ ആ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ആ നിങ്ങൾ എന്തായിരുന്നു വരാതിരുന്നത് ആ ടിക്കറ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ ആ നമ്മൾ

അടുത്തത് നെക്സ്റ്റ് ഡേയെ ഉള്ളൂ സെവൻ തേർട്ടിയ്ക്ക് വരും അടുത്തത് ആ അതെ ആ ബാംഗ്ലൂർക്ക് പോവണ്ടേ അപ്പം വേറെ ഫ്ലൈറ്റ് ഇടയ്ക്ക് ഇല്ല വേറെ അത് ആ ആ അങ്ങനെ നോക്കാം പക്ഷേ അന്നേരം നിങ്ങൾ അഡീഷണൽ പേയ്മെൻ്റ ചെയ്യേണ്ടി വരും എന്തായാലും നിങ്ങളുടെ സീറ്റിൽ വേറെ ആരെയും കയറ്റി വിട്ടിട്ടില്ലല്ലോ അപ്പം പിന്നെ ആ ആ സീറ്റ് കാലി ആയിട്ടാണ് പോയേക്കുന്നത് അപ്പം പിന്നെ വേറെ പേയ്മെൻ്റ ചെയ്യേണ്ടി വരും ഉവ്വുവ്വ അത് അത് മനസിലാക്കാം അപ്പം എന്തായാലും ചെയ്തിരുന്നെങ്കിൽ അതിന് പകരം ഒരാളെ കയറ്റി വിടാമായിരുന്നു അപ്പം നമുക്ക് ആ പേയ്മെൻ്റെ എന്തായാലും നമുക്ക് അതിന് പകരം ഒരാളെ കയറ്റി വിട്ടിട്ടില്ലല്ലോ ആ പേയ്മെൻ്റെ നമുക്ക് കിട്ടിയെങ്കിലും വേറെ അഡീഷണൽ പെയ്മെൻ്റ നമുക്ക് വന്നിട്ടില്ല അപ്പം അടുത്ത ഫ്ലൈറ്റിന് നിങ്ങൾ അതുപോലെ തന്നെ ചാർജ് ചെയ്യേണ്ടി വരും ആ നിങ്ങൾ ഇപ്പം എടുത്ത ചാർജിൻ്റെ കൂടെ ഒരു ട്വൻ്റി പെർസെൻ്റെജും കൂടി ആഡ് ചെയ്യേണ്ടി വരും ആ അതിപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതാണ് ഇവിടത്തെ ലോ ആ അതെ അതെ നിങ്ങൾ ഒരു ട്വൻ്റി പെർസെൻ്റെ പെർസെൻ്റെജും കൂടെ കൂടുതൽ അടയ്ക്കേണ്ടി വരും